പല രീതിയില് ഗവൺമെൻറ്റ് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് പല സൗകര്യങ്ങളും ഇന്ന് നമ്മുടെ ആശുപത്രികളിൽ ഒന്നുമില്ല പലർക്കും സൗകര്യങ്ങൾ വേണമെങ്കിൽ വേറെ പുറത്ത് പ്രൈവറ്റ് ആശുപത്രിയിലേക്കൊക്കെ പോകേണ്ട ഗതിയാണ് അതൊക്കെ ഗവൺമെൻറ്റ് ആശുപത്രി ഇപ്പോളും കമ്പ്യൂട്ടറൈസ്ഡ് സംഭവങ്ങൾ ഒന്നും ഇല്ല അവര് അവരിപ്പോഴും ഡാറ്റാ സ്വീകരിച്ച് ഫയലുകളിലൊക്കെ ആക്കിയിരിക്കുന്നതാണ് അതൊക്കെ ഒന്ന് മാറ്റം വരുത്തണം പിന്നെ കൂടുതലും ഒരു ഇതിനെക്കുറിച്ച് കൂടുതലും പഠിക്കുക അറിവുള്ള ആൾക്കാര് ഇതില് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ആൾക്കാരെ ഇതിൽ കുറച്ചു കൂടി ഒരു ശ്രദ്ധ നൽകണം പിന്നെ എല്ലാ ഡോക്ടർമാരും നമ്മളെല്ലാവരും പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകുന്നതിനു പകരം കൂടുതലും ഗവൺമെൻറ്റ് ആശുപത്രിയിലേക്കൊക്കെ പോയി ഗവൺമെൻറ്റ് ആശുപത്രിയിൽ കൂടുതല് ആൾക്കാരും പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ആൾക്കാരും എല്ലാ ഗ ആൾക്കാരും ഗവൺമെൻറ്റ് ആശുപത്രിയിൽ പോകും ഇപ്പോൾ വലിയ മന്ത്രിമാര് വരെ പ്രൈവറ്റ് ആശുപത്രികളിലും ഇന്ത്യയ്ക്ക് പുറത്തൊക്കെയാണ് പോയിട്ട് ചികിത്സ ചെയ്യുന്നത് അപ്പോൾ നമ്മള് അത് മാറ്റി നമ്മുടെ സ്വന്തം നാട്ടിലെ ഗവൺമെൻറ്റ് ആശുപത്രി സാധാരണ ആശുപത്രിയിൽ സാധാരണക്കാർക്ക് പോകാൻ പറ്റിയ ആശുപത്രികൾക്ക് ആശുപത്രിയിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊടുത്ത് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മള് ഒരു വിധം ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ പറ്റും പിന്നെ വേണ്ട കാര്യങ്ങൾ എന്തെന്നുവെച്ചാൽ കൃത്യമായ യാത്ര സൗകര്യങ്ങൾ ആംബുലൻസ് ചികിത്സിക്കാൻ വേണ്ട എക്യുപ്പ്മെൻസ്സ് ഉപകരണങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമുക്ക് കുറക്കാൻ സാധിക്കും പിന്നെ നല്ല രീതിയിലുള്ള പെരുമാറ്റം നല്ല രീതിയിലുള്ള നഴ്സുമാര് ഡോക്ടർമാര് അവരുടെയൊക്കെ ഒരു പെരുമാറ്റം തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒരുവിധത്തിലും കുറയ്ക്കാൻ പറ്റും അവര് നല്ല രീതിയിൽ പെരുമാറിയാൽ തന്നെ പലർക്കും കേട്ടിട്ടുണ്ട് രോഗിയുടെ പല പല അസുഖങ്ങളുടെ പകുതി ഇവരുടെ പെരുമാറ്റം കാരണം നമുക്ക് മാറി കിട്ടും എന്ന് അപ്പോൾ നല്ല രീതിയിൽ പെരുമാറുന്ന നല്ല രീതിയിൽ എക്സ്പീരിയൻസ് നല്ല കുറേക്കാലം ജോലി ചെയ്ത ഡോക്ടർമാരും നഴ്സുമാരൊക്കെ നമ്മുടെ ഹോസ്പിറ്റല് വർക്ക് ചെയ്യുകയാണെങ്കിൽ സാധാരണ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഗവൺമെൺറ്റ് ആശുപത്രി ജോലി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയില് മറ്റമൊക്കെ നമുക്ക് ഇതുവഴി ഉണ്ടാക്കാൻ പറ്റും അതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഗവൺമെൺറ്റ് ആശുപത്രിയിലുള്ള സൗകര്യങ്ങളൊക്കെ കൂട്ടാൻ ചെയ്യേണ്ട കാര്യങ്ങള്